ഹലോ ആ ക്ലിയർ ഉണ്ട് അതെ ആ നിങ്ങൾ എത്ര റേറ്റിനാണ് ഉദ്ദേശിക്കുന്നത് ആ ആ റേറ്റിനൊക്കെ ഉള്ളതുണ്ട് അതിൽ കുറഞ്ഞതുണ്ട് വേറെ കമ്പനികൾ ഉണ്ട് പൾസർ ഉണ്ട് ഹോണ്ടയുടേതുണ്ട് ആക്ടീവ അങ്ങനെ ഒരുപാടുണ്ട് ആ ഇപ്പം വിഷുവിൻ്റെ ഓഫറുകൾ ഉണ്ട്

ഏതാണ് മൈലേജൊക്കെ നാൽപ്പത് ആ അമ്പതൊക്കെ വരുന്നതൊക്കെ ഉണ്ട് ഏത് ഏത് കളറളാണ് വേണ്ടതെന്നുള്ളത് താൽപര്യം ഏത് കളറാണ് ഗ്രേ ഗ്രേ കളർ അല്ലേ ഓക്കെ ഓക്കെ ആ നിങ്ങൾ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി വീട്ടിൽ തന്നെ എത്തിച്ചു തരികയും എല്ലാം ചെയ്യും പിന്നെ ഓഫറും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഓഫറ് വിഷുവിൻ്റെ രീതിയിലായിട്ടുള്ള ഓഫറുകൾ ഉണ്ട് പലതിനും പല രീതിയിലുള്ള ഓഫറുകളാണ് ആ ലോണൊക്കെ ലോണൊക്കെ കിട്ടും അത് നമ്മൾ ഓരോ റേറ്റിന് അനുസരിച്ചിട്ടാണ് വരുന്നത് ആ ഉണ്ടാവും എത്രയാണ് ആ നമ്മൾ ഒരു ആ ഴ്ചക്ക് ഉള്ളിൽ തന്നെ എത്തും ആ പിന്നെ സെക്കൻഡ് ഹാൻഡ ഉണ്ട് ആ നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ പുതിയത് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ആ എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തു തരും ആ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി ഞങ്ങൾ എല്ലാം ചെയ്തു റെഡിയാക്കി വീട്ടിലെത്തിക്കുന്നതായിരിക്കും കാര്യങ്ങൾ വന്നു പേപ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും ചെയ്തു കഴിഞ്ഞിട്ട്

നിങ്ങൾക്ക് ആ ലോണ് അത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്കുള്ള ഇതിന് അനുസരിച്ചായിരിക്കും ഇപ്പം നിങ്ങൾ ഒരു ലക്ഷത്തിൻ്റെ എടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ അടയ്ക്കുന്നത് അതിന് അനുസരിച്ചായിരിക്കും ആ അത് നിങ്ങൾ എടുക്കുന്നതിന് അനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ

ആ ഷോറൂമിലേക്ക് വരൂ ആ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു